നമ്മുടെ ഗ്രാമത്തിൽ പാമ്പുകടി അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ഇത് വന്നുകഴിഞ്ഞാൽ ഇനി ഇപ്പോൾ നമ്മളെ കടന്നൽ കുത്തുക അല്ലെങ്കിൽ ഈച്ച അങ്ങനത്തെയൊക്കെ കുത്തുമ്പോൾ നമ്മളെ പാമ്പ് കടിക്കുന്നതിന് ചികിത്സ വേറെയാണ് അതിന് നമ്മൾ ആ വൈദ്യരെ പോയി കാണുക ഇപ്പോൾ നീർക്കോലിയൊക്കെ ആണ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ രാത്രി ഉറങ്ങാൻ പാടില്ല അല്ലെങ്കിൽ മറ്റേ ഭക്ഷണം കഴിച്ചിട്ട് വലിയ ചെറിയ ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണ് പറയാറ് ഇപ്പോൾ ഈ പ്രാണികളൊക്കെ ആണെന്ന് പറയുമ്പോൾ നമുക്ക് പലരീതിയിൽ നമ്മളിവിടെ കടിച്ച അവിടെ തടിപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ മഞ്ഞപ്പൊടി തേക്കുക അല്ലെങ്കിൽ ഉപ്പ് കല്ലുപ്പ് തേച്ച് വെക്കുക അല്ലെങ്കിൽ തേൻ പുരട്ടുക പിന്നെ എന്താ പറയുക ആ ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് കല്ലുപ്പ് മറ്റേ മഞ്ഞൾപ്പൊടി തേൻ പിന്നെ വെളിച്ചെണ്ണ ആ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തേച്ച് കുറച്ചു നേരം എന്താ പറയുക ഇരിക്കാൻ പറയും മെയിൻ ആയിട്ട് ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ അവിടെ സ്ഥലത്തുള്ള ആ മറ്റേ എന്താ പറയുക പൊള്ള വന്ന രീതിയിലുള്ള പാടും കാര്യങ്ങളൊക്കെ പോയിക്കിട്ടും അത് എന്ത് കൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ അത് കുത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചെറിയ ഒരു വിഷം പോലെ ഉള്ള അതായത് ചെറിയ അതിൻ്റെ ആ ഒരു രീതിയിലുള്ള ഒരു വിഷം പോലെയുള്ള നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ ഈ ഉപ്പ് ഒക്കെ തേക്കുമ്പോൾ അത് നമ്മുടെ പുറത്തേക്ക് വരും കാരണം ഇതിൻ്റെ ആ പ്രക്രിയയിലൂടെ ആ ചലം പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചുങ്ങി പോകും സാധാരണ അതൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത് പിന്നെ പാമ്പ് കടിക്ക് നമ്മള് എന്താ പറയുക ഒഴിവാക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഇപ്പോൾ നമ്മൾ പാടത്ത് കൂടെ പോകുമ്പോൾ അങ്ങനത്തെ ഏരിയയിലോക്കെ ആയിരിക്കും കൂടുതൽ പാമ്പുകൾ ഇപ്പോൾ നമ്മൾ അധികവും ഈ എന്താ പറയുക ചെരുപ്പ് ഇടുമ്പോൾ റബ്ബറിൻ്റെ ഒക്കെ ഇപ്പോൾ കൃഷിക്കാർ സാധാരണ ഇടുന്ന പോലത്തെ റബ്ബറിത്തെ ചെരുപ്പുകൾ ഇപ്പോൾ നമ്മൾ ഈ എന്താ പറയുക റബ്ബർ ബൂട്ട്സ് എന്നൊക്കെ പറയുമല്ലോ ആ സംഭവമൊക്കെ ധരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അധികം പിന്നെ പാമ്പുകടി ഏൽക്കാതെ രക്ഷപ്പെടാൻ പറ്റും